ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റായിരുന്നു കുർത്തിയായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊരു യെല്ലോ കളർ കുർത്തയാണ് വാങ്ങിച്ചത് പക്ഷെ അതിൻ്റെ മെറ്റീരിയൽ ഒരുമാതിരി ശരിയല്ലായിരുന്നു ഡാമേജ്ഡ് ആയിരുന്നു സ്റ്റിച്ചിങ് കറക്റ്റ് ആയിരുന്നില്ല ഞാൻ നല്ലൊരു റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങിയത് പക്ഷെ അതിന് അതിനുള്ള രീതിയിലൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല അതിൽ സ്റ്റോൺസ് മറ്റുകാര്യങ്ങൾ നേരെ പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താ പറയുക നമുക്ക് കൈയിൽ തൊടുമ്പോൾ തന്നെ കളർ മറ്റുകാര്യങ്ങളും പോകുന്നുണ്ട് വാഷ് ചെയ്യുന്ന സമയതായിക്കോട്ടെ അത് ശരിയല്ല അപ്പോൾ ഒരു മെറ്റീരിയൽ ശരിയല്ലായിരുന്നു